മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ പൊതുശുചിത്വവും മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ തീർച്ചയായിട്ടും പൊതുശുചിത്വം മെച്ചപ്പെടുത്തേണ്ടത് തന്നെയാണ് മാലിന്യം വളരെയേറെ ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുതയാണ് ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളാണ് എവിടെ നടന്നാലും നമുക്ക് കാണാന് സാധിക്കുന്നത് പഞ്ചായത്ത് തലത്തില് ആണെങ്കിലും മുന്സിപ്പാലിറ്റിയിലാണെങ്കിലും മാലിന്യങ്ങള് അവിടേയും ഈടേം ഇവിടേയും വലിച്ചെറിയുന്ന പ്രകൃതമാണ് മനുഷ്യനില് സാധാരണയായി കാണുന്നത് കാരണം നമ്മൾ എത്രയേറെ പഞ്ചായത്തുകളും മുന്സിപ്പാലിറ്റികളും പരിശ്രമിച്ചിട്ടും നമുക്ക് തടുക്കാനാവാത്ത ഒരു സംഭവമാണ് മാലിന്യം ഈ മാലിന്യത്തെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പഞ്ചായത്തും മുന്സിപ്പാലിറ്റിയും അവര്ക്കു വേണ്ടി പല തരത്തിലുള്ള കാര്യങ്ങള് ചെയ്തു കൊണ്ടിരിക്കുന്നു അത് അത്രത്തോളം മനുഷ്യനില് അത് പ്രാപ്തമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാന് സാധിക്കുന്നത് മനുഷ്യന് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പെരുമാറിയാൽ മാത്രമേ ഈ കേരളത്തില് നിന്നും അല്ലെങ്കില് ഇന്ത്യയില് നിന്നും നമുക്ക് മാലിന്യങ്ങളെ വിമുക്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്ന് പ്ലാസ്റ്റിക് എന്ന ഒരു വിഷ വസ്തു നമ്മുടെ നാട് മുഴുവന് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്ലാസ്റ്റിക് നമ്മുടെ വീടുകളില് വന്ന് എടുത്തു കൊണ്ടുപോകുവാന് നമ്മൾ ഹരിതകര്മ സേന എന്നൊരു സേന അംഗത്തിനെ പരിചയപ്പെടുത്തി കൊണ്ട് അവരെ എല്ലാ വീടുകളിലും നമ്മൾ യൂസർ ഫീയോടു കൂടി അതായത് ഒരു വീടിന് അമ്പത് രൂപാ പ്രകാരം ഈ വീടുകളില് നിന്ന് പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് മാറ്റി അത് തരം തിരിച്ച് ക്ലീന് കേരള കമ്പനിയിലേക്ക് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലൂടെ മുന്സിപ്പാലിറ്റിയും നമ്മുടെ പഞ്ചായത്തും മാറിയിട്ടുണ്ട് അതിനകത്ത് എത്രത്തോളം മനുഷ്യന് അതിന് ഉത്തരവാദിത്തം എടുക്കിന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇന്ന് ഹരിത കര്മ സേന അംഗങ്ങളെ നമ്മുടെ വീടുകളില് പ്ലാസ്റ്റിക് എടുക്കാന് വിടുമ്പോള് പോലും നമ്മുടെ മനുഷ്യന് പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു പ്രകൃതത്തിലേക്ക് നമ്മൾ മനുഷ്യന് മനുഷ്യന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അവര്ക്ക് എത്ര ബോധവല്ക്കരണം കൊടുത്ത് കഴിഞ്ഞാലും ക്യാന്സര് എന്നൊരു വിപത്തിനെ മാറ്റി നിര്ത്തണമെങ്കില് പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കണം എന്നും മനുഷ്യനോട് പറഞ്ഞാലും അവര്ക്ക് എത്രത്തോളം അത് മനസ്സിലാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കാരണം ഇന്ന് അവര്ക്ക് അതിനോട് ഉത്തരവാദിത്തം ഉണ്ടെങ്കില് മാത്രമേ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നതില് നിന്ന് നമുക്ക് ക്യാന്സര് ഉണ്ടാകും എന്നൊരു നല്ല ബോധവല്ക്കരണം ഇപ്പോഴും മനുഷ്യന്റെ ഇടയില് വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനിട്ടു സാധിക്കുന്നത് സാധിച്ചിരിക്കുന്നത് ഈ ഓരോ ഒരോ ഓരോ മനുഷ്യന്റെ കാര്യത്തിലും ഓരോ മനുഷ്യര്ക്കും ഒത്തിരി ഉത്തരവാദിത്തങ്ങള് ഉണ്ട് മാലിന്യം അവനവന്റെ ഉറവടങ്ങളില് തന്നെ സംസ്കരിക്കുവാനുള്ള ഒരു ബോധം എനിക്കും നിങ്ങള്ക്കും ഉണ്ടാകണം ഇത് പോലീസില് പരാതിപ്പെട്ടിട്ടോ അത് മറ്റുള്ളവരോട് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവും ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല മനുഷ്യന് സ്വന്തമായി മനസ്സിലാക്കുവാനും അവര്ക്ക് ബോധം ഉത്തരവാദിത്വം സ്വന്തമായി ഉണ്ടായാല് മാത്രമേ അവരവരുടെ മാലിന്യങ്ങള് അവരവരുടെ ഉറവിടങ്ങളില് സംസ്കരിക്കുവാനുള്ള നല്ല ബോധ്യം അവര്ക്കുണ്ടാവുകയുള്ളു തീര്ച്ചയായിട്ടും ഇന്ന് ഹരിതകര്മസേന എന്നൊരു വ്യക്തികളെ നമ്മൾ പഞ്ചായത്ത് തലത്തില് ഇറക്കിയിട്ടുണ്ടെങ്കില് അവര്ക്ക് പ്ലാസ്റ്റിക് കൊടുക്കുവാനും അത് പിന്നെ യൂസര് ഫീ കൊടുത്ത് അവരെ അവരെ മുന്നോട്ടു കൊണ്ടു വരുവാന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇന്ന് തന്നെ പഞ്ചായത്ത് തലത്തില് നമ്മൾ എം സി എഫ് എന്ന് പറയും അത് അതും നമ്മൾ പ്ലാസ്റ്റിക്കുകൾ വീടുകളില് നിന്ന് ശേഖരിച്ചുകൊണ്ട് നമ്മൾ

അജൈവ മാലിന്യങ്ങള് അതായത് പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങള് എടുത്ത് അത് നമ്മൾ നമ്മുടെ ഉറവിടങ്ങളില് സംസ്കരിക്കുന്നു അത് ക്ലീന് കേരള കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ഒരോ പഞ്ചായത്തും മുന്സിപ്പാലിറ്റിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് അത് ഏറ്റവും വലിയ ഒരു പ്രൊജക്റ്റായിട്ട് തീരുന്നുണ്ട് കാരണം ഇന്ന് മാലിന്യങ്ങള് കുന്നുകൂടി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്ലാസ്റ്റിക്കുകള് നമ്മുടെ വീടുകളില് നിന്ന് ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ഈ ഒരു ഹരിതകര്മ സേനാക്കാരെ നമ്മൾ ഇറക്കിയത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഒത്തിരിയേറെ മനുഷ്യര്ക്ക് ബോധവല്ക്കരണത്തിലേക്ക് ആള്ക്കാർ വരുന്നുണ്ട് കാരണം ക്യാന്സര് പോലുള്ള മാരക രോഗം പടര്ന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തില്

കുട്ടികള്ക്ക് അത് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് നമ്മൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പലപല ക്ലാസുകൾ നമ്മൾ പഞ്ചായത്തുകൾ നടത്തുകയും സ്കൂളുകളില് പോയി നമ്മൾ നടത്തി പോലീസ് മേധാവികളെ ഒക്കെ വിളിച്ചു കൊണ്ടുള്ള ഒരു നല്ല ക്ലാസ്സൊക്കെ അവര്ക്ക് നടത്തി കൊടുക്കുന്നത് പഞ്ചായത്ത് തലത്തില് ഞങ്ങള് നടത്തുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ ഒത്തിരിയേറെ അവര്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയില് ഈ കുട്ടികള്ക്കാണെങ്കിലും മുതിര്ന്നവര്ക്ക് ആണെങ്കിലും മനസ്സിലാകത്തക്ക രീതിയിലാണ് ഈ ഒരു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് എല്ലാവരും മാലിന്യം അവരവരുടെ ഉറവിടങ്ങളില് തന്നെ സംസ്കരിക്കുവാന് ഏറ്റവും കൂടുതല് പരിശ്രമിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്